കൃഷിക്കായിട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ല ആദ്യമൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് നല്ല സഹായം ലഭിക്കുമായിരുന്നു വിത്തുകളായിട്ടും അതിലുള്ള വളങ്ങളായിട്ടും സബ്സിഡികൾ വിത്ത് ഇനങ്ങളിലുള്ള ഇത് അതിനൊക്കെ വിത്ത് ഇനങ്ങളായിട്ട് ഒക്കെ നല്ല സഹായമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലത്ത് ന്യൂ ജെനറേഷൻ കാലഘട്ടത്തിൽ എന്താണ് ഫ്ലാറ്റുകൾ മറ്റ് ബിൽഡിങ്ങുകളൊക്കെ പൊങ്ങിയതുകൊണ്ട് കൃഷിയിടങ്ങളൊക്കെ നികത്തി മണ്ണിടങ്ങളൊക്കെ നികത്തിയിട്ട് ഇപ്പം ഫുൾ ഫ്ലാറ്റുകൾ കയറിയതു കൊണ്ട് ഇപ്പം കൃഷിക്കൊക്കെ ഉള്ള ഇടം കുറവായി വന്നിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ വലിയ പ്രശ്നമാണ് അതേപോലെ കൃഷിക്ക് എന്താണ് കൃഷി മാത്രം വരുമാനമായിട്ട് ജീവിച്ചിരുന്നവരൊക്കെ ഇപ്പം അതുകൊണ്ട് നല്ല ഗതികേടിലാണ് ഇപ്പോൾ എന്താണ് അതുകൊണ്ട് അവർക്ക് ആകട്ടെ എന്താണ് ഇപ്പം എല്ലാവരും സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിയിട്ട് കൃഷി ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ടൗൺ ഏരിയകളിലൊക്കെ ഉള്ളവരൊക്കെ കൃഷി ചെയ്തിരുന്നവർ എല്ലാവരും ഇപ്പോൾ നികത്തി വീടുകൾ ബിൽഡിംഗുകൾ ഫ്ലാറ്റുകൾ മറ്റ് ഫാക്ടറികൾ ഒക്കെ ഉണ്ടാക്കി അപ്പം മറ്റുള്ളവരുടെ ഇത് രീതി എന്താണ് കൃഷി രീതിയിലുള്ളവരൊക്കെ മറ്റ് തൊഴിൽമേഖലകളൊക്കെ സ്വീകരിക്കേണ്ട അവസ്ഥ വന്നത് പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യകാലങ്ങളിലൊക്കെ എന്താണ് ഈ വായ്പകളൊക്കെ ലഭിക്കുമായിരുന്നു സബ്സിഡികൾ വായ്പകൾ എന്താണ് കൃഷി ചെയ്യാൻ പൈസയില്ലാത്തവർക്ക് പൈസ കൊടുത്തിട്ടും അതേപോലെ തന്നെ പിന്നെ പൈസ കൊടുക്കാനുള്ളവർക്ക് എന്താ ഒരു ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള പിന്നെ ഏഴ് വർഷത്തേക്കുള്ള അങ്ങനെ വർഷം കണക്കാക്കിയിട്ടുള്ള രീതിയിൽ പൈസ ഒക്കെ കൊടുക്കുമായിരുന്നു പിന്നെ സർക്കാർ എന്താണ് ഈ കൃഷിക്ക് ഉള്ള വളങ്ങളും ജൈവവളങ്ങളും മറ്റുമൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യകാലത്ത് കൃഷി ഉള്ളവർക്കൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോഴും ചെറിയ ചില നെല്ല് ഉല്പാദിപ്പിക്കുന്ന കേരളത്തിന് പുറത്തുള്ള ആൾക്കാരൊക്കെ കൂടുതൽ കൃഷി ചെയ്യുന്നതാണ് ഇപ്പോൾ അപ്പം അവർക്കൊക്കെ ഇപ്പോഴും എന്താണ് നെല്ല് കൃഷി അങ്ങനത്തെ മറ്റ് സഹായങ്ങളൊക്കെ സർക്കാർ അവരുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്